നമുക്കിവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇഷ്ടംപോലെ പുഴകളും കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ കോരാപ്പുഴ അങ്ങനത്തെ പുഴകളും കാര്യങ്ങളുമൊക്കെയുണ്ട് ഇവിടെയൊക്കെ മെയ്നായിട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കാം അങ്ങനെ പലരീതിയിലും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഡാമെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ കക്കയം ഡാമ് ഈ ഡാമുകളിലെ മെയ്നായിട്ടുള്ള പ്രവർത്തനമെന്നു പറഞ്ഞുകഴിഞ്ഞാൽ അത് മെയ്നായിട്ട് ഇപ്പോൾ ഗവൺമെന്റും കാര്യങ്ങളൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം അങ്ങനത്ത കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് എന്നു വേണമെങ്കിൽ പറയാം പിന്നെ ചാലിയാർപ്പുഴ ചാലിയാർപ്പുഴയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ളൊരു പുഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നല്ല ആ എന്താ പറയുക അടിപൊളിയായിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെയായിരിക്കും പിന്നെ കല്ലായിപ്പുഴ പിന്നെ ഇരുവഴഞ്ഞി ഇരുവഴഞ്ഞിപ്പുഴ ഇരവഴഞ്ഞിയെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുതന്നെ ഉണ്ടാവും നമ്മൾ എന്ന് നിൻ്റെ മൊയ്തീൻ എന്നു പറഞ്ഞ സിനിമയിൽ ഉള്ള ഒരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഫേമസായിട്ടുള്ളൊരു പുഴയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പൂനൂർപ്പുഴ അങ്ങനത്ത പല രീതിയിലുള്ള പുഴകളും കാര്യങ്ങളൊക്കെ നമ്മടെ കോഴിക്കോട് ജില്ലയിൽ എല്ലാ സ്ഥലങ്ങളിലുണ്ട് പിന്നെ കബനിപ്പുഴ കബനിപ്പുഴയെന്നു പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിൽ നിന്ന് വരുന്ന ഒരു പുഴയാണ് കാരണമെന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിലേക്ക് ആ പുഴയും കാര്യങ്ങളൊക്കെ നമ്മളെ ഇവിടെത്തന്നെയാണ് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററാണ് ആ പുഴയുടെ നീളവും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ വീതിയും കാര്യങ്ങളും അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവിടെ നമുക്ക് അടുത്തുള്ള ഒരു പുഴയും കാര്യങ്ങളൊക്കെയായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും